ഞാൻ ഒരിക്കൽ ഡ്രോയിങ് ക്ലാസ്സും ശിൽപ്പകല ക്ലാസ്സും എടുത്തിട്ടുണ്ട് ശരിക്കും ഒരു അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് എന്തിനെ കുറിച്ച് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അധ്യാപക രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം അത് അനുഭവിച്ചറിയേണ്ടതാണ് ഒരിക്കൽ ഞാൻ ഡ്രോയിങ് ക്ലാസ്സ് എടുക്കുവാൻ പോയപ്പോൾ എൻ്റെ വിദ്യാർത്ഥികൾക്ക് ഞാൻ ആദ്യം ആദ്യ പടി എന്ന നിലയിൽ പല കാര്യങ്ങളും പഠിപ്പിച്ച് കൊടുത്തു കൂടുതലും എൻ്റെ ഡ്രോയിങ് ക്ലാസ്സിൽ ഡ്രോയിങ് പഠിക്കാൻ വന്നവർ ആർക്കും തന്നെ ഡ്രോയിങ്ങുമായി വലിയ ബന്ധമുള്ളവരൊന്നും ആയിരുന്നില്ല പക്ഷെ അവർക്ക് ഞാൻ എൻ്റെ ക്ലാസ്സുകൾ കൊണ്ട് ഡ്രോയിങ് എന്ന് പറയുന്ന ആർട്ടിനോട് അഥവാ കലയോട് ഒരു ഇഷ്ടം ഉണർത്തി കൊടുത്തു പല ഡ്രോയിങ് ക്ലാസ്സുകളും നടത്തപ്പെട്ടു ഏറ്റവും ഒടുവിൽ ഒരു ദിവസം ഞാൻ ഒരു എക്സാം എന്ന രീതിയിൽ ഇന്ന പടം വരക്കുവാൻ എല്ലാ വിദ്യാർഥികളോടും ആവശ്യപ്പെട്ടു അതിൽ എന്നെ ഏറ്റവും അനുഭവപ്പെടുത്തിയ ഏറ്റവും എനിക്ക് ഒരു പുതുമ പകർന്ന അനുഭവം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി വരച്ച പടത്തിൽ ഞാൻ ക്ലാസ് എടുക്കുന്നതും ആ വിദ്യാർത്ഥികൾ ശ്രദ്ധാപൂർവം അവ ശ്രദ്ധിച്ച് ഇരിക്കുന്നതുമായ ഒരു ചിത്രം എടുത്ത് വരച്ച് എനിക്ക് നൽകി ആ ചിത്രം ഇന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ അദ്ധ്യാപകരെ മനസ്സിലാകുന്ന അദ്ധ്യാപകരെ സ്നേഹിക്കുന്ന ശ്രദ്ധയോടു കൂടി അദ്ധ്യാപകർ പറയുന്നത് കേട്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ നമുക്ക് ഇന്നയുടെ കാലയളവിൽ ആവശ്യമാണ് അതുപോലെ ഒരിക്കൽ ശിൽപ്പകലാ ക്ലാസ് എടുക്കുവാൻ വേണ്ടി ഞാൻ പോയി അവിടെയും ഇതുപോലെ തന്നെയൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ഞാൻ ഒരിക്കൽ ശിൽപ്പകലാ ക്ലാസ് എടുത്തു കൊണ്ടിരുന്നപ്പോൾ ഒരു വിദ്യാർത്ഥി എൻ്റെ ചിത്രം ഗുരുവിനുള്ള ഗുരു ദക്ഷിണയെന്ന് പറഞ്ഞു കൊണ്ട് ശിൽപത്തിൽ കൊത്തി വരച്ച് എടുത്ത് എനിക്ക് നൽകി അന്ന് എൻ്റെ ജന്മദിനം കൂടിയായിരുന്നു